ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കുറേ അധികം പറയാനുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്തും ആരോഗ്യം ആൾക്കാർ സംരക്ഷിക്കുന്നത് ഓരോ തരത്തിലാ ഇപ്പം ഓരോരോ സംസ്ഥാനങ്ങളിൽ ഓരോ തരത്തിൽ ഓരോ നാട്ടിൽ ഓരോ രീതിയിൽ അങ്ങനെ ഓരോ തരത്തിലാണ് ആരോഗ്യം ആൾക്കാര് സംരക്ഷിക്കുന്നത് ആ ഇപ്പം കേരളത്തിലെന്ന് പറഞ്ഞാൽ പൊതുവേ മലയാളികൾ കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണ് അവർക്ക് അവരുടെ മുടി അവരുടെ സ്കിന്ന് അവരുടെ എന്താ പല്ല് അങ്ങനെയൊക്കെ അവർ പൊതുവേ ശ്രദ്ധിക്കുന്നവരാ പക്ഷേ നേരെ മറിച്ച് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാര് അത്രക്ക് ശ്രദ്ധിക്കുന്നവരല്ല ഞാൻ കണ്ടെടുത്തോളം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇപ്പോഴും ഉണ്ട് കൃഷി സ്ഥലത്ത് പണിയുന്നവർ സോപ്പ് പോലും തേക്കാതെ കുളിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവിടുത്തെ ആ ചേറ് ആ മണ്ണ് കളയാൻ സോപ്പ് വേണ്ട അത് അങ്ങനെ തന്നെ അങ്ങ് വെറുതെ കഴുകി കളഞ്ഞാൽ പോകും അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇപ്പം പക്ഷേ കേരളം നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്താലും സോപ്പിട്ട് കയ്യ് കഴുകുന്നു ഹാൻഡ് വാഷ്വ എടുക്കുന്നു അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കൊറോണ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നേ പിന്നെ ഇപ്പോഴും സാനിറ്റൈസ് ചെയ്യുന്നു അല്ലങ്കില് മാസ്ക് ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ പക്ഷേ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ഇപ്പം കൊറോണ മറ്റ് സംസ്ഥാനത്തിലൊക്കെ തീർന്നെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ കൊറോണ തീർന്നത് ഏറ്റവും അധികം കേസുകൾ വന്നതും കേരളത്തിൽ തന്നെയാണ് ഇപ്പം പൊതുവേ ആൾക്കാർ പറയുക അയ്യോ ഞങ്ങൾ മലയാളികൾക്ക് കേരളത്തിലക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണ് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര വൃത്തിയുള്ളവരാണെന്നൊക്കെ പറഞ്ഞാലും കൊറോണയുടെ ഒറ്റ കേസ് എടുത്താൽ തന്നെ നമുക്കറിയാം മറ്റ് സ്റ്റേറ്റിലും ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തതും ഒരുപാട് ലാസ്റ്റ് അതായത് ഒടുവിൽ കേരളത്തിലാണ് കൊറോണ കേസ് തീർന്നതും എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പം വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യം അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആരോഗ്യമുള്ള മനസ്സിനു മാത്രമേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവൂ ഒരാളുടെ മനസ്സ് ഫിറ്റാണെങ്കിൽ അയാൾ മനസ്സ് കൊണ്ട് ഹാപ്പിയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സ് കൊണ്ട് സംതൃപ്തിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് പകുതി അസുഖങ്ങളും കുറഞ്ഞിരിക്കും ഇപ്പം അയാൾ എന്താ പറയുക എന്നും ചിലപ്പോൾ അവർക്ക് സാമ്പത്തികം ഇല്ലായിരിക്കും ചിലപ്പം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുക അങ്ങനെയുള്ളവർക്ക് പകുതിയും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നൊക്കെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഇപ്പം വേറെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ പോലെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവരല്ല ഇപ്പം ദേ നമുക്ക് കാണാം ഇവിടേക്ക് വന്ന അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നു അവരൊക്കെ ശരിക്കും ഫുഡ് കഴിക്കുന്നത് കിടന്ന് ഉറങ്ങുന്നത് അല്ലെങ്കിൽ അതൊക്കെ ശരിക്കും വൃത്തിഹീനമായ സ്ഥലത്ത് അല്ലേ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് സുഖസൗകര്യത്തിലും ഒരുപാട് നല്ല രീതിയിലും ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യ സംരക്ഷണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഓരോ മനുഷ്യർക്കും അവർക്ക് പൊതുവേ തനിയെ അത് തോന്നണം എൻ്റെ ശരീരമാണ് അത് ഞാൻ വൃത്തിക്ക് സൂക്ഷിക്കണം അത് ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ ഇതെൻ്റെയാണ് എൻ്റെ കണ്ണാണ് എൻ്റെ മൂക്കാണ് എൻ്റെ ചെവിയാണ് എൻ്റെ ഓരോ അവയവങ്ങളും അതായത് എൻ്റെ ബോഡി അത് ഞാൻ വൃത്തിക്ക് സൂക്ഷിക്കണം എന്നുള്ളൊരു ബോധം ഓരോ മനുഷ്യനും അവരവരിലുണ്ടായാൽ തന്നെ പകുതി വൃത്തിയുണ്ടാകും പിന്നെ പോരാഞ്ഞിട്ട് നമ്മൾ മറ്റൊരിടത്തേക്ക് വലിച്ചെറിയുന്ന സ്വഭാവം അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റുണ്ടെങ്കിൽ വലിച്ചെറിയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതൊക്കെ നമ്മൾ പൊതുവേ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിലെ വൃത്തിഹീനമായ പകുതി സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായം വച്ച് അങ്ങനെയാണ്